ഞാന് ദിവസവും യോഗ ചെയ്യാറുണ്ട് അപ്പോള് യോഗ ശീലമാക്കിയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങള് ഒക്കെ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം മുമ്പൊക്കെ എനിക്ക് ശ്വാസത്തിന് കിതപ്പ് അനുഭവപ്പെട്ടിരുന്നു ശരീരത്തിന് വല്ലാത്ത ഭാരമൊക്കെ അനുഭവപ്പെട്ടിരുന്നു അപ്പോള് ഈ യോഗ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് എൻ്റെ ശരീരത്തിൻ്റെ ഭാരം ഒക്കെ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റിയത് കാരണം ഇപ്പോള് ഞാന് രാവിലെ ഇപ്പോള് യോഗ തുടങ്ങിയപ്പോള്ത്തന്നെ എനിക്ക് വല്ലാത്ത പ്രയാസമൊക്കെ അനുഭവപ്പെട്ടിരുന്നു പക്ഷേ പിന്നീടത് മാറി ഇപ്പോള് ഞാന് ഒരു സാധാരണ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ അതുമല്ല അതു മാത്രമല്ല എനിക്ക് വല്ലാത്ത തലവേദന അതുപോലെ ഭയങ്കര സ്ട്രെസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോള് അതൊക്കെ എനിക്ക് ശരിക്കിനും മാനേജ് ചെയ്യാനും അതെനിക്ക് അത് നല്ല രീതിയിലേക്ക് നല്ലൊരു നല്ലൊരു നല്ലൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഇപ്പോള് എനിക്ക് ഓവർ തിങ്കിംഗ് അതായത് കൂടുതൽ ചിന്തിക്കുക എന്നുള്ള ഒരു പ്രയാസമുണ്ടായിരുന്നു അപ്പോള് അതിനൊക്കെ അതേപോലെ എൻ്റെ ചിന്തകളെ അതുപോലെതന്നെ എൻ്റെ പല പ്രശ്നങ്ങളെയും മാനസികമായിട്ടുള്ള ടെൻഷനുകൾ അതൊക്കെ എനിക്ക് ഒന്ന് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ശ്വാസോച്ഛ്വാസത്തിന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെയൊക്കെ എനിക്ക് കിതപ്പ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര ശ്വാസോച്ഛ്വാസത്തിനൊക്കെ പ്രയാസമുണ്ടായിരുന്നു എന്നുള്ളത് അതീ യോഗ ചെയ്തതിനുശേഷം എനിക്ക് അതൊക്കെ എൻ്റെ ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഈയൊരു യോഗ ചെയ്യുന്നത് ശീലമാക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്